ഞാൻ യോഗ ക്ലാസുകൾ സ്കൂൾ സ്കൂളിൽ വച്ച് കൂടിയിട്ടുണ്ട് അങ്ങനെ അവിടെ നിന്ന് യോഗ ക്ലാസ്സിൽ ടീച്ചേഴ്സ്സ് പറഞ്ഞിട്ടുണ്ട് യോഗ വീട്ടിൽ ചെന്ന് അഭ്യസിക്കണമെന്ന് പക്ഷെ നമ്മൾ വീട്ടിൽ ചെന്ന് അഭ്യസിക്കുമ്പോൾ അവർ അവിടെ പറഞ്ഞു തന്നത് പോലെ നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല കാരണം അവർ അവിടെ നമുക്ക് ഓരോ കാര്യങ്ങൾ അവർ നമ്മള് തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ അത് ചെയ്ത് ഇത് ചെയ്ത് കറക്റ്റ് ആക്കിത്തരും പക്ഷെ വീട്ടിൽ നമുക്ക് അത് കഴിയുന്നില്ല കാരണം നമുക്ക് കുറേ ഭാഗത്ത് തെറ്റ് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് യോഗ നല്ലോണം ചെയ്യാൻ കഴിയില്ല യോഗ ക്ലാസ്സിൽ പോകുന്നതാണ് നല്ലതെന്ന് ആണ് എന്റെ ഒരു അഭിപ്രായം